കമ്പ്നി അല്ലേ കാറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരു ഹോണ്ടൻ്റെ ഒരു ഇപ്പോഴത്തെ ഈ ട്രെൻഡിംഗ ആയ ഒരു മോഡല് രൂപത്തിൽ ഇപ്പം

ആ അത നൊക്കെ ആ അതിൻ്റെ മൈലേജും പിന്നെ അതിൻ്റെ പ്രൈസൊക്കെ എങ്ങനൊക്കെ വരിക ആ ആ അപ്പോൾ ഒരു കാണാൻ ലുക്കിനൊക്കെ ഒരു അത്യാവശ്യം മൈലേജും ഒരു ഇരുപത്തി ആറ് ആ വയസ്സൊക്കെയാണ് ഈ ഹോണ്ടസിറ്റിൻ്റെ അത് ഇപ്പോഴത്തെ കാലത്തെന്ന് പറയുന്നത് ഒരു നല്ല ഒരു മറ്റേ രൂപത്തിലുള ഹോണ്ട സിറ്റി കാർ അല്ല അത് എങ്ങനെ എങ്ങനെയായിട്ടാണ് അടക്കുക അത് അക്കൗണ്ടിൽ നിന്ന് അല്ല ബാങ്ക് അക്കൗണ്ട് നമ്പറോ അങ്ങനെയാണോ അന്ന് പേയ്മെൻറ് അതോ ഓൾ ക്യാഷ് മൊത്തത്തിൽ ആ അപ്പോൾ അതിൻ്റെ കണക്ക് നിങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമോ ഓരോ അത് ഇനി ഓൺലൈ നിങ്ങളെ സൈറ്റ് സൈറ്റിൽ തന്നെ ഉണ്ടാവുമോ കാറിൻ്റെ ഡീറ്റെയിൽ മൊത്തം നിങ്ങളെ കാറിൻ്റെ ഡീറ്റേൽ മൊത്തം ഈ അത് എങ്ങനെ ക്യാഷ് ക്യാഷ് മൊത്തത്തിൽ എടുക്കലോ അതോ ക്യാഷ മൊത്തത്തിൽ അടക്കലാണോ മറ്റേ ആ ഒരു ഒരു റെഡ് അത്യാവശ്യം കാണാൻ ലുക്കുള്ള ഒരു കളറ് ആ അങ്ങനത്തെ ഒരു കാറാണ് വേണ്ടത് കണ്ടാൽ കുറച്ചൊക്കെ ഒന്ന് നല്ല രസമെല്ലാം തോന്നുന്ന രീതിയിൽ